ആ ചേട്ടാ മറ്റെ ആ കട്ടില് ഒക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ളത് ആ എത്ര വരുന്നുണ്ട് നമ്മൾ ബഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നോക്കണത് ഇപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നമുക്ക് ഡബിൾ കോട്ട് വേണ്ടി വരും നമുക്ക് തേക്ക് നോക്കാം

അത് വീട്ടിൽ എത്തിക്കുമോ അ ഓക്കെ

ആ ചേട്ടാ പിന്നെ ഇയാള് പറയുന്നതൊ അത് ഏതൊക്കെ ഉണ്ട് ഇപ്പോൾ

നമുക്ക് തേക്കിൻ്റ ഒന്ന് നോക്കാം

അല്ല അപ്പം നമ്മള് ഒരു ടേബിളും എടുക്കണം ഒര് കട്ടിലും എടുക്കണം അല്ല ടേബിള് അലമാര

വേറെ വേറെ ആ ടീപ്പോയ് ഒന്ന് വേണം സോഫ ആ ആ ടൈപ്പ് വല്ലതും ആണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ആ നാലായിരത്തെണ്ണൂറ് അല്ലെ

അപ്പം ഞാൻ ഇപ്പം ഞമ്മക്ക് ഇത് ഒക്കെ എടുക്ക ഈ പറഞ്ഞ സാധനം എടുക്കാം കട്ടിലും അലമാരയും ഓൺ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം ആ ഓ അതെ അതെ

ഞാൻ ഞാൻ പോയിട്ട് ലൊക്കേഷൻ അയച്ച് തരാം